മൃഗത്തിൻ്റെ പരിപാലിക്കാനായിട്ട് നമ്മള് ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞങ്ങള് കൂടുതല് പുറത്തുനിന്ന് ഫുഡ് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫുഡുകള് വാങ്ങിക്കാതെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളാണ് മൃഗങ്ങൾക്ക് കൊടുക്കാറ് ഇപ്പോള് പുല്ല് വൈക്കോല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരിക്കും കൂടുതല് കൊടുക്കുന്നത് അല്ലെങ്കില് അങ്ങനത്തെ വേസ്റ്റ് വീട്ടിലെ വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഞങ്ങളുടെ വീട്ടിലെ മൃഗങ്ങൾക്ക് കൂടുതല് കൊടുക്കാറ് അതുപോലെത്തന്നെ ഞങ്ങളുടെ എൻ്റെ വീട്ടിലെ മുതിർന്നവര് തലമുറകളായിട്ട് കുറേ കാര്യങ്ങള് കുറേ ചികിത്സാരീതികളും എങ്ങനെ ഒരസുഖം വന്നുകഴിഞ്ഞാൽ എങ്ങനെ ആ മൃഗത്തിനെ ചികിൽസിക്കാമെന്നൊക്കെയുള്ള പലരീതികളും ഞങ്ങളുടെ പല മുൻതലമുറക്കാര് ഞങ്ങള്ക്ക് പകർന്ന് തന്നിട്ടുണ്ട് അല്ലാതെ പ്രതേകിച്ച് വേറെ അല്ലാതെ രീതികളും അങ്ങനെയൊന്നും പറഞ്ഞുതന്നിട്ടില്ല എങ്ങനെ ചികിൽസിക്കാമെന്നൊക്കെ ഉള്ള പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്